പണ്ട് നമ്മുടെ രാജ്യം രാജാക്കന്മാരുടെ അവകാശത്തിലായിരുന്നു അവരാണ് ഭരിച്ചിരുന്നത് അതുകഴിഞ്ഞ് നേരെ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം പിടിച്ച് പിടിച്ചെടുത്തു പിടിച്ചെടുക്കുകയും പിന്നെ അവരും കുറെ നാൾ ഭരിച്ചു ഭരിച്ചു നമ്മുടെ ഇവിടത്തെ ജനങ്ങൾ അതിനെതിരായി സമരം ചെയ്യുകയും ഒത്തിരി പേരതിനുവേണ്ടി ജീവത്യാഗം ചെയ്താണ് നമ്മളൊരു ഡമോക്രാറ്റിക് രാജ്യമായി പിന്നീട് പിന്നീട് മാറിയത് അതിൻ്റെ കോൺസ്റ്റിട്യൂഷൻ കൊണ്ടുവന്നത് നമ്മുടെ ഡോക്ടർ അംബേദ്കറാണ് അദ്ദേഹത്തിൻ്റെ ലോയും റൂൾസുവൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പക്ഷേ ഈ ഫോ പണ്ട് കാലത്ത് മാത്രമെയിത് ഫോളോ ചെയ്തത് പണ്ടാണെങ്കിൽ നമുക്ക് വോട്ടവകാശം നമ്മൾ കൊടുക്കുന്നത് കഴിവുള്ളാൾക്കാർക്ക് മാത്രവാണ് വോട്ടു കൊടുത്തിരുന്നത് ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴ്ത്തേക്കും എൽ ആർക്ക് പൈസയുണ്ട് ആർക്കാണ് പവറ് കൂടുതൽ അവർ അവരാണിപ്പം ഭരിക്കാൻ ഫ്രണ്ടിലോട്ട് വരുന്നത് നമളതു ചെയ്യാം ഇതു ചെയ്യാം ഫ ഇത് നമ്മൾ എലക്ഷൻ സമയത്ത് നമുക്ക് ആ എന്ത് ഡവലപ്മെണ്ടും ചെയ്യാം നമ്മുടെ റോഡ് ഡവലപ്മെൻ്റ് ചെയ്യുന്നുണ്ട് നമുടെ എജുക്കേഷൻ ഡവലപ്മെൻ്റ് ചെയ്യാം അതുപോലെ ഹെൽത്തിന് ഡവലപ്മെൻ്റ് ചെയ്യാന്നൊക്കെ കുറെ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ അതുനുവേണ്ടി ജയിച്ചു പോയിക്കഴിഞ്ഞാൽപ്പിന്നെ അവരാവഴിക്ക് തിരിഞ്ഞ് പോലും നോക്കത്തില്ല ഇ ഇപ്പഴാന്ന് ഇപ്പോൾ മിക്ക എലക്ഷനെന്നു പറയുന്നത് പ്ര പ്രചാരണത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ കാണും അത് കഴിയുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ അവരെയൊന്ന് സമീപിച്ചിട്ട് ഒ നോക്കിയാൽ അവർ നമ്മളെ വരാം വരില്ലെന്ന് പറയില്ല വരാം വരാം പറയുന്നതല്ലാതെയവർ തിരിഞ്ഞ് പോലും നോക്കത്തില്ല പിന്നിപ്പം നമ്മളെ റോഡിൻ്റ അവസ്ഥകൾ പറയണ്ട റോഡ്കള് നന്നാക്കിയങ്ങോട്ട് തീരും മുൻപേ വലിയ വലിയ കുഴികളാണ് അപകടങ്ങളതു പോലെ അതിനു പുറമേ പണ്ടത്തെപ്പോലെയല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇപ്പം രാഷ്ട്രീയമെന്നു പറഞ്ഞാൽ വെറും പ്രഹസനം മാത്രമേയുള്ളൂ അവനവൻ്റെ കീശകൾ നിറയ്ക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവരുടെ പ ആരാണ് ഭരിക്കുന്നത് അവരുടെ പാർട്ടിയെ പൊക്കി പൊക്കിക്കൊണ്ട് പോവുക എങ്ങനെയെങ്കിലും പൈസയുണ്ടാക്കുകന്നു മാത്രേയുള്ളൂ അല്ലാതെ ജനങ്ങളെ സേവിക്കുക അങ്ങനെയെല്ലാവരൂടെ ഉദ്ദേശം അതുകൊണ്ട് എനിക്കിപ്പോഴത്തേക്കുള്ള നമ്മുടെ അപ്പോൾ രാഷ്ട്രീയം ഇപ്പോൾ താൽപ്പര്യമില്ല